ആ ഹലോ ആ ഹലോ സാർ ഞാൻ അമലാട്ടോ സംസാരിക്കുന്നത് സാറേ ഞാൻ മറ്റേ പുറത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോൾ മറ്റേ കുറെ ഇതൊക്കെ നോക്കി കുറെ ഫയലും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവര് മറ്റേ പാൻകാർഡിൻ്റെ ആവശ്യമൊക്കെ പറഞ്ഞു അപ്പം വേണമെങ്കിൽ എനിക്കാണെങ്കിൽ പാൻ കാർഡും ഇല്ല അപ്പോൾ പാൻ കാർഡ് എന്തായാലും വേണമെന്നാണ് ആവർ പറയുന്നത് അപ്പോൾ ഞാൻ അപ്പം അതിൻ്റെ അതെങ്ങനെ ആണ് ഉണ്ടാക്കുന്നത് ഉണ്ട് അതിന് നമ്മള് കൊടുക്കുമ്പോൾ മറ്റേ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി കൊടുക്കണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ സാറിനെ വിളിച്ചത് സാറിനാണെങ്കിൽ ഇതിനെപ്പറ്റിയൊരു ധാരണയൊക്കെ ഉണ്ടാകുമല്ലോ സാറെ അപ്പോൾ ഇതൊന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരുമോ നമ്മളെന്താ ചെയ്യേണ്ടത് എന്നുള്ള

സാറേ പിന്നെ ഇതിന് കുറെ സാധനങ്ങൾ ഒക്കെ വേണോ അത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ ആയിരുന്നു സാറെ ഇതിന് വേണ്ടത് ആ ഓക്കേ സാർ ഓക്കേ ആ ഓക്കേ ഓക്കേ അപ്പം അപ്പം ഇത്രയും സാധനം മതി അല്ലേ സാറേ ആ ഓക്കേ സാറെ എന്നാൽ എന്നാ താങ്ക്യൂ കേട്ടോ